ആ ഹുണ്ടായ് ഷോറൂമല്ലേ ഞാനിത് ഞാൻ ഒരു ഹുണ്ടായ് ഹുണ്ടായ് ബ്രാൻഡിൽനിന്നു ഒരു കാറെടുക്കാൻ വേണ്ടീട്ടാണ് വിളിക്കുന്നത് എനിക്ക് വേണ്ടത് ആ ഞാൻ ഫീച്ചേഴ്സിനു മുമ്പ് ഞാൻ ആൾറെഡി ഒരു കാർ നോക്കി വെച്ചിട്ടുണ്ട് ഹുണ്ടായ് വെർണ അപ്പോൾ അത് മേടിക്കാനാണെൻ്റെ പ്ലാൻ അപ്പോൾ അതിൻ്റെ എന്താ പറയുക റോഡ് പ്രൈസ് പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഡിസൈഡ് ചെയ്യാം വെർണ മ് മ് മ് മ് മ് മ് ഈ ഹുണ്ടായ് ക്രെറ്റൻ്റെ പ്രത്യേകത എന്താ അതിലെന്താ എക്സ്ട്രാ എയർ ബാഗ് ഒക്കെയുണ്ടോ ഓക്കെ എയർ ബാഗ് അപ്പോൾ എത്രയാ എയർ ബാഗ് ഉണ്ടാവുക ഈ ഹുണ്ടായ് വെർണേല് എത്ര എത്രയാ എഹ് ഓ ഓക്കെ ഓക്കെ പിന്നെ ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണ് എത്ര കിലോമീറ്റർ ഓടും ഓക്കെ മറ്റേതിനോ വെർണയ്ക്കോ മ് മ് മ് എനിക്കൊരു മുപ്പത് കിലോമീറ്റർ പെർ ഹവർ ഉള്ള മൈലേജുള്ള വണ്ടിയാണ് വേണ്ടത് ആണല്ലേ ഈ ഹുണ്ടായ് ഈ ഈ ഹുണ്ടായ് ക്രെറ്റയിലോ വെർണയിലോ എന്താ മൈലേജ് കൂടിയ സ്പെസിഫിക്കേഷൻ വല്ലതും ഉണ്ടോ മ് ഓക്കെ ഓക്കെ മ് പിന്നെ എന്തായാലും ഞാൻ നേരിട്ട് വന്ന് ബാക്കി സംസാരിക്കാം ഞാൻ എന്തായാലും ഇപ്പോൾ വരുന്നുണ്ട് ഓക്കെ ശരി